മലയാളികളെ സംബന്ധിച്ച് ഏത് ഭാഷയും എത്രയും പെട്ടെന്ന് പഠിക്കാൻ സുഖമാണ് കരണം എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ തമിഴാണെങ്കിലും നമുക്ക് ഒരു ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് പോലും ഓൽക് മലയാളം പറഞ്ഞ് കഴിഞ്ഞാൽ ഓൽക് അത് മനസിലാക്കാൻ പറ്റും അതേ പോൽ തന്നെ തമിഴ് ഓല് ഇങ്ങോട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചെറിയ ഒരു ഇത് ഉള്ളത് കൊണ്ട് സാദൃശ്യം ഉള്ളത് കൊണ്ട് അത് എന്തൊക്കെയാണ് ഊഹിക്കാനൊക്കെ പറ്റും പല ഭാഷകൾ അതേ പോലെ തന്നെ അറബി ആയിക്കോട്ടെ അറബി ഒക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും മലയാളികൾ കൂടുതലും വിദേശത്താണ് അതുകൊണ്ട് തന്നേ എത്ര പെട്ടന്നാണ് ഒല് അറബി ഒക്കെ പഠിക്കുന്നത് അത്രയും പെട്ടന്ന് നല്ല പഠിച്ച് ഉഷാറായിട്ട് ഒരു ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഓല് ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ടൊക്കെ പറയണേക്കാം എത്ര പെട്ടന്നാണ് അറബി പഠിച്ചതെന്ന് പറയണേക്കാം അത് പോലെ തന്നെ ഇപ്പോൾ കന്നഡയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പിന്നെ മറ്റ് ഭാഷകൾ പഠിക്കാൻ സുഖമാണ് നമ്മളെ ഭാഷ പഠിക്കാനെ ഉള്ളൂ മറ്റ് ആളുകൾക്ക് കുറച്ച് ബുന്ധിമുട്ട് ഇപ്പോൾ ബംഗാളികൾ ആയാലും വന്നാലും സംസാരിക്കുമ്പോത്തിന് നമ്മൾക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ മലയാളത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഓൽക് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു ആറുമാസം കൊണ്ടൊക്കെ പെട്ടെന്ന് മലയാളം പഠിക്കാനും അല്ലെങ്കിൽ ബംഗാളികളോട് നമ്മൾക്ക് സംസാരിക്കാനൊക്കെ പെട്ടെന്ന് പറ്റുന്നുണ്ട്